ഹലോ കോഴിക്കോട് ക്യാബ് ഡ്രൈവർ ആണോ ഞങ്ങൾ ഇവിടെ മ മംഗ്ളൂരിന്ന് വരുന്നത് ആണേ അപ്പം നമുക്ക് കേരളത്തിൽ കുറച്ച് ദിവസം സ്റ്റേ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്ടിൽ സ്റ്റേ ചെയ്തിട്ട് കേരളം ഫുൾ ആയിട്ട് ഒന്ന് കാണണമെന്ന് ഇണ്ടായിരിന്നേ ആ ആ അപ്പം ഞാൻ പിന്നെ മറ്റന്നാളെ ആണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഞങ്ങൾ നാളെ ആണ് ഇവിടിന്ന് പുറപ്പെടുക അപ്പം മറ്റന്നാൾ രാവിലെ ഒക്കെ ആവുമ്പോഴ്ത്തേക്ക് എത്തും

ആ അതെ അതെ ഞങ്ങൾ വണ്ടിയിൽ അല്ല ഞങ്ങൾ ട്രെയിനിൽ ആണേ വരുന്നത് അപ്പം കോഴിക്കോട് കോഴിക്കോട് വരാൻ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം അവിടത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങും അപ്പം നിങ്ങൾ ജസ്റ്റ് വിളിച്ചിട്ട് നിങ്ങൾ അതിന് ഞങ്ങൾ എത്തുന്നേന് കുറച്ച് മുന്നേ വിളിക്കാം അപ്പം നിങ്ങൾ അവിടേക്ക് എത്തില്ലേ ആ ഹാ ഹാ ഓക്കെ ആ ഞങ്ങൾ പിന്നൊരു എട്ട് പേരുണ്ട്

ആ അങ്ങനെ ആണെങ്കിൽ മതി ആ ഹാ ഹാ ഹാ ആ സ്റ്റേ ഒക്കെ നമ്മൾ പിന്നെ അതായത് ഞങ്ങൾക്ക് ആ ആ വലിയ പിടിത്തം ഇല്ല അതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് തരുവാണെങ്കിൽ നല്ലത് ആയിരുന്നു ആ എട്ട് പേർക്കുള്ള റൂമ് നമുക്ക് പക്ഷേ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടിന്നന്നെ റെഡി ആവണം

എട്ട് പേർ നമ്മൾ പിന്നെ നാല് പേർ നാല് പേർ വെച്ചിട്ടാണ് അപ്പം ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾ വെച്ചിട്ടുള്ള

ആ മതി മതി രണ്ട് റൂമ് മതി നമുക്ക് നമുക്ക് അത്യാവശ്യം വലിയ ബെഡ് സൗകര്യം കാര്യങ്ങൾ ഒക്കെ വേണം ആ അങ്ങന വേണം അപ്പം പിന്നെ നമുക്ക് ഏകദേശം കുട്ടികൾക്ക് കളിക്കാൻ ഉള്ള അങ്ങനെ ഉള്ള അതായത് എല്ലാ ഇതും ഉള്ള ഒരു റിസോർട്ട് കാര്യങ്ങളൊക്കെ മതിയേ അത് പറഞ്ഞിട്ട് ഇപ്പം ഫുൾ അങ്ങനെ ഒക്കെ ഉള്ളത് ആണ് അങ്ങനെ ഉള്ളതാ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മൾ ഇപ്പം നാളെ മോർണിംഗ് എത്തും എന്തായാലും നാളെ കഴിഞ്ഞ് നമുക്ക് മറ്റന്നാൾ ഇതാക്കാം നമുക്ക് യാത്രാ ക്ഷീണോം കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലെ അപ്പം മറ്റന്നാൾ ആ മറ്റന്നാൾ ആ ഓക്കെ ഓക്കെ ആ എന്നാൽ അങ്ങനെ ചെയ്താൽ മതി ആ ഓക്കെ താങ്ക് യൂ ആ അരമണിക്കൂർ മുന്നെ അതായത് ഞാൻ നാളെ എന്തായാലും പുറപ്പെടുന്നേന് മുന്നെ എന്തായാലും നിങ്ങളെ ഒന്ന് വിളിക്കാം പിന്നെ അതേപോലെ മറ്റന്നാൾ നമ്മൾ മറ്റന്നാൾ രാവിലെ എത്തും അപ്പം നമ്മൾ രാവിലെ ഒക്കെ നിങ്ങൾ അവൈലബിൾ ആയിരിക്കില്ലേ മോർണിംഗ് ചിലപ്പം നമ്മൾ നാളെ രാവിലെ പുലർച്ചയ്ക്ക് ആയിരിക്കും എത്താ അപ്പം വരാണ്ട് ഒന്നും ഇരിക്കൂല്ലല്ലോ അല്ലേ ഞങ്ങൾ കുടുങ്ങി പോവേ കുട്ടികൾ ഒക്കെ ഉള്ളത് അല്ലേ ആ നമുക്ക് ഫുഡ് സൗകര്യം ഒക്കെ അത് മോർണിംഗ് അതായത് നാളെ മറ്റന്നാൾ മോർണിംഗ് തൊട്ടുള്ള ഫുഡ് കാര്യങ്ങൾ എല്ലാം വേണോട്ടോ ആ ഞങ്ങൾക്ക് ഫ്രഷ് അപ്പ് ചെയ്യാൻ ഉള്ള സ്ഥലം എല്ലാം നിങ്ങൾ റെഡി ആയിക്കോളൂ ക്യാഷിൻ്റെ ഒന്നും നോക്കണ്ട ക്യാഷ് നമ്മൾക്ക് എത്ര ആയാലും പ്രശ്നം ഇല്ല ആ ഓക്കെ താങ്ക് യൂ